മലയാളം പഠിപ്പിക്കുന്നത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നുണ്ട് കാരണം നമ്മളുടെ മാതൃഭാഷയാണ് അത് എല്ലാവരും അറിഞ്ഞിരിക്കണം നല്ലത് ഒരു നാടിൻ്റെ നിലനിൽപ്പിനു വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പം ഒരു നാടിൻ്റെ ഒരു കൾച്ചറും കാര്യങ്ങളും സാംസ്കാരവും ഒക്കെ ഒരു ഭാഷയിലും പ്രാധാന്യം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ളതുണ്ട് പിന്നെ ഞമ്മളെ നാട്ടിൽ പല ഇംഗ്ലീഷ് സ്കൂളുകളിലും ഈ മലയാളം സംസാരിക്കുന്നതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫോണിന്മേൽ കളിക്കുന്നതു കൊണ്ട് കുട്ട്യാൾക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയും മലയാളം തീരെ അറിയില്ല കുട്ടികളെ അതിനു താത്പര്യം ഇല്ലാതാക്കുകയാണ് മാതാപിതാക്കളും കുട്ടികളെ ഇതു പോലെ ഭാഷ മലയാള ഭാഷ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇംഗ്ലീഷ് പഠിച്ചോ എന്നാലെ എവിടെയെങ്കിലും എത്തുകയുള്ളു എന്നൊക്കയാണ് പല നാട്ടിലും പല മാതാപിതാക്കളു ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നടക്കുന്നത് പിന്നെ ഭാഷൻ്റെ നിലനിൽപ്പിനാണല്ലോ നമ്മൾ കുട്ടികളിലാണത് നമ്മൾ കുട്ടികൾ പഠിപ്പിച്ചിട്ടാണല്ലോ കാര്യമുള്ളു എന്നാലല്ലേ ഭാഷ അടുത്ത തലമുറക്കു അടുത്ത തലമുറക്കും ഒക്കെ ഭാഷ എത്തുകയുള്ളു അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എല്ലാവരും ഇതേപോലെ അല്ല മലയാളികളും ഒക്കെ ഇതേപോലെ കുട്ടികളെ പഠിപ്പിക്കു മലയാള ഭാഷ പഠിപ്പിക്കുന്നതിൽ ഒരു പഠിപ്പിക്കുന്നതിൽ നിർബന്ധം കാണിക്കണം പിന്നേ മലയാളമെന്നു പറഞ്ഞാൽ ഈ കേരളത്തിലെ ആകെയുള്ള ഭാഷയാണ് അപ്പോൾ കേരളത്തിനെ റെപ്രെസെന്റ് ചെയ്യണേ ഭാവിയിലൊരു കേരളത്തിലെ ഭാഷയായിരിക്കും മലയാളം ഭാവിയിൽ കുട്ടികൾക്ക് അത് അറിയില്ല എന്നുള്ള ഒരു നിലയിൽ എത്തരുത് ഇപ്പം പല കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല സംസാരിക്കാൻ മാത്രമേ അറിയുള്ളു അതു തന്നെ കറക്റ്റ് ഉച്ഛാരണത്തിലോ കാര്യങ്ങളിലോ ഒന്നും അല്ല എഴുതാനും വായിക്കാനും മിനിമം പത്താം ക്ലാസ്സ് വരെയെങ്കിലു ഇപ്പം ഉണ്ട് പക്ഷെ കുറച്ചുംകൂടിയും സാഹിത്യപരമായും ഒക്കെ കുട്ടികൾക്ക് കുറച്ചും കൂടി നിലവാരമുള്ള വിദ്യാഭ്യാസമൊക്കെ നൽകി ഇതേപോലെ ചെയ്യണം എന്നാലെ നമ്മളുടെ മലയാള ഭാഷ നിലനിൽക്കുകയുള്ളു നിലനിൽപ്പില്ലാതെ ഈ കേരളത്തിന് തന്നെയൊരു വില ഉണ്ടാകില്ല മലയാള ഭാഷയില്ലാതെ പിന്നെ ഇതേപോലെ പഠനത്തിൽ മലയാള ഭാഷ അറിയാത്തതു കൊണ്ട് പല നമ്മളുടെ മലയാള സാഹിത്യം കുറേ പുറകോട്ട് പോകുകയാണ് പണ്ടത്തെ പോലെയല്ല മലയാള സാഹിത്യത്തിന് ഇങ്ങനെ ഭാഷ അറിയാത്ത കുട്ടികൾക്ക് എഴുതാനും വായിക്കാൻ തന്നെ നേർക്ക് അറിയില്ല അക്ഷരത്തെറ്റില്ലാതെ ഒരു കുറിപ്പെഴുതാൻ പറഞ്ഞാൽ ആൾക്കാർക്ക് കഴിയില്ല ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷിൽ ആണെങ്കിൽ പല ആൾക്കാർ പലതും പല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യും പിന്നെ ഇംഗ്ലീഷ് സിനിമ കുട്ടികൾ കാണുന്നത് മലയാളം സിനിമ ഒക്കെ കുറച്ചും കൂടിയും പ്രൊമോട്ട് ചെയ്ത് ഇതേപോലെ ചെയ്താൽ കുട്ടികൾക്ക് മലയാള ഭാഷ കുറച്ചും കൂടിയും കൂടുതൽ ആക്കുക പല സ്ലാങിലും മലയാള ഭാഷേൻ്റെ പല സ്ലാങിലും നമുക്ക് ഇതേപോലെ സിനിമകളും കാര്യങ്ങളൊക്കെ ഇറക്കി കുട്ടികൾക്ക് കുറച്ചും കൂടിയും അതിൻ്റെ ഭാഷ കുറച്ച് നല്ല അറിവുണ്ടാകും പിന്നെ ഇത് നല്ല നല്ല മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് മലയാള ഭാഷ നല്ല നിലയിൽ എത്തിക്കണം പിന്നെ മലയാള ഭാഷ എന്നു പറയുന്നത് ഇന്ത്യയിൽ ധാരാളം ഭാഷകളിൽ ഒന്നാണ് അതേപോലെ അത് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യക്കും കേരളത്തിനും ഒക്കെ അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്